ബൈക്കോടിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യം ഹെൽമെറ്റാണ് ഹെൽമറ്റ് ബൈക്ക് ഓടിക്കുന്നവർക്ക് സുരക്ഷിതമായിട്ട് കരുതേണ്ട ഒരു സുരക്ഷാകവചമായിട്ടാണ് നമ്മള് കരുതുന്നത് ബൈക്കെപ്പോഴും അപകടകരമായ ഒരു കാര്യമാണ് ഒരു ഗട്ടറിൽ ചാടിയാലോ അല്ലെങ്കിലൊരു പട്ടി വിലങ്ങനെ ചാടിയാലോ ഒക്കെ അപകടമുണ്ടാകുമ്പോൾ നമ്മുടെ തലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായി നമ്മള് ഈ ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് ഹെൽമറ്റ് അത്യാവശ്യമായ ഒരു കാര്യമാണ് സുരക്ഷയാണ് പിന്നെ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കൂടുതൽ യാത്ര ദൂരമാണെങ്കിൽ കയ്യിൽ ചെറിയ ഉറകളൊക്കെ ധരിച്ചുകൊണ്ടും കൈ അതിനെ സംരക്ഷിക്കുന്നതിനുമൊക്കെ അതൊരു സുരക്ഷയായിട്ടാണ് കരുതാറുള്ളത് പിന്നെ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബൈക്കുകളില് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈസൻസ് അത്യാവശ്യമായൊരു കാര്യമാണ് പിന്നെ പുക പരിശോധിക്കുമ്പോൾ അതും കറക്റ്റായിരിക്കണം അത് അതിൻ്റെ ഡേറ്റുകളൊക്കെ തെറ്റാതെ കറക്റ്റായിട്ടുള്ള രേഖകൾ വേണം ബുക്കും പേപ്പറും വേണം പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ എപ്പോഴും ഓരോ പ്രദേശങ്ങള് കടന്നുപോകുമ്പോൾ അതിൻ്റെതായ പരിധികളുണ്ട് ആ പരിധിക്കപ്പുറം സ്പീഡെടുക്കാൻ പാടില്ല വളവുകള് പിന്നെ അപ്രകാരമുള്ള റോഡുകളുടെ ഓരോ രീതിയിലുള്ള സ്പീഡുകളൊക്കെ നമ്മുടെ വഴിയോരങ്ങളിലുണ്ട് മുപ്പത് അമ്പത് അറുപത് എന്ന സ്പീഡുകളൊക്കെയുള്ള ഭാഗങ്ങൾ ചെല്ലുമ്പോൾ അത് കറക്റ്റായും അതിനെ അനുസരിച്ച് വേണം ബൈക്കോടിക്കാൻ പിന്നെ കൂടുതലായി നമ്മള് വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്ത് പോകുമ്പോൾ അതിനെ ശ്രദ്ധിച്ചുവേണം യാത്ര ചെയ്യുവാൻ പിന്നെ ഏതൊരു ആവശ്യങ്ങൾക്കും നമ്മുടെ ബുക്കും പേപ്പറുമെല്ലാം നമ്മുടെ കൈവശമുണ്ടായിരിക്കണം ലൈസൻസ് കൃത്യമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു രേഖയാണ് ബുക്കും പേപ്പറും ലൈസൻസും ഇതൊക്കെയാണ് നമ്മള് ബൈക്ക് ബൈക്കെന്നല്ല വാഹനങ്ങൾക്കെല്ലാം നമുക്കാവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്